ഓഡിയോ ബുക്കുകൾ കേട്ടിട്ടില്ല ഞാന് അധികവും ഉപയോഗിച്ചിട്ടുള്ളത് അച്ചടിച്ച പുസ്തകങ്ങളും ഇലക്ട്രോണിക് പതിപ്പുകളുമാണ് കാര്യം അച്ചടിച്ച പുസ്തകങ്ങള് നമുക്ക് കൂടുതല് നമ്മളുടെ കൈകളില് കൊണ്ടു നടന്നും വായിക്കാന് സാധിക്കും നമുക്ക് അണ്ടെര്ലൈന് ചെയ്യാം അതില് തന്നെ അടയാളപ്പെടുത്തിയൊക്കെ വയ്ക്കാം അപ്പോൾ നമ്മുടെ മനസ്സില് പതിഞ്ഞതു പോലെ നമുക്ക് വായിച്ചെടുക്കുവാന് സാധിക്കും അച്ചടിച്ച പുസ്തകങ്ങൾ പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതല് പേരും ഉപയോഗിക്കുന്നത് ഇപ്പം വാട്സ്സപ് ഈ സ്മാട്ട് ഫോണ്സിന്റെ വരവിന് ശേഷം എല്ലാവരും നോട്ട്സും കാര്യങ്ങളുമൊക്കെ ഫോണുകളിലാണ് സേവ് ചെയ്തു വയ്ക്കുന്നത് അത് കൊണ്ട് തന്നെ ഇന്ന് അച്ചടിച്ച പുസ്തകങ്ങളേക്കാൾ എല്ലാവരും പി ഡി എഫ് അതായത് ഇലക്ട്രോണിക് പതിപ്പുകളിലാണ് കൂടുതല് വായനകള് ഒതുക്കപ്പെട്ടിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക് പതിപ്പുകള് കിട്ടാന് അല്ലെങ്കില് ഇലക്ട്രോണിക് പതിപ്പുകളെ ആശ്രയിക്കാന് മാത്രം കഴിയുന്ന അവസരങ്ങള് നിങ്ങൾ അത് ആശ്രയിക്കുക അല്ലാത്ത പക്ഷം നിങ്ങള്ക്ക് ഒരു അച്ചടിച്ച പുസ്തകം കിട്ടുമെങ്കില് അത് അതായിരിക്കും ഇലക്ട്രോണിക് പതിപ്പുകളെക്കാളും കൂടുതല് മെച്ചം കാരണം നേരിട്ട് കണ്ടു നോക്കി വായിക്കാനും വായിച്ച് അത് അയാളപ്പെടുത്തി നമ്മുടെ മനസ്സില് പതിപ്പിക്കാനും നമുക്ക് അച്ചടിച്ച പുസ്തകങ്ങള് വായിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ഞാന് കരുതുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ സ്മാട്ട് ഫോണ്സിന്റെ ഉപയോഗം കൂടുതൽ കാരണം നമ്മൾ എല്ലാ ഫയല്സും തന്നെ പി ഡി എഫ് ആക്കി നമ്മുടെ ഫയലിലും ലാപ്ടോപ്സ്സിലുമൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുക പക്ഷെ ഒത്തിരി സ്ക്രീന് ടൈം നമ്മൾ ഇപ്പം അച്ചടിച്ച പുസ്തകങ്ങളെക്കാളും ഇലക്ട്രോണിക് പതിപ്പുകളെ ആശ്രയിക്കുമ്പം സ്ക്രീന് ടൈം കൂടുന്നു സ്ക്രീൻ ടൈം കൂടുമ്പോൾ നമ്മുടെ വായനാശീലം ഇപ്പം നമ്മൾ ലാപ്ടോപ്പിലും ബുക്കിലുമൊക്കെ വായ്ക്കും ഫോണിലുമൊക്കെ വായിക്കുന്ന സമയത്ത് ആവശ്യമുള്ള കണ്ടന്റിന്റെ വേഡ് തന്നെ നമ്മൾ ആ ഒരു പര്ട്ടിക്കുലര് ബോക്സിൽ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോഷന് മാത്രം നമുക്ക് ഫില്ട്ര് ചെയ്തെടുക്കാന് പറ്റും ആ ഒരു പോഷന് മാത്രമേ നമ്മൾ വായിക്കത്തുള്ളൂ അതേസമയം ഒരു അച്ചടിച്ച പുസ്തകമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ അതിലെ എല്ലാ കണ്ടൻ്റും വായിച്ചതിന് ശേഷമേ നമ്മൾ ഒരു ആശയത്തിലോട്ട് എത്തത്തുള്ളു ഇലക്ട്രോണിക് പതിപ്പുകള്ക്കും അച്ചടിച്ച പുസ്തകങ്ങള്ക്കുമുള്ള വ്യത്യാസം അതാണ് നമ്മുടെ ഒരു വായനാ ശീലം അത് വന്നിട്ട് ഈ ഇലക്ട്രോണിക് പതിപ്പുകൾ വന്നിട്ട് കുറച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ അച്ചടിച്ച പുസ്തകങ്ങൾ ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന കൂടുതല് മെച്ചം നമ്മുടെ ഇലക്ട്രോണിക് പതിപ്പുകളെ വച്ച് താരതമ്യപ്പെടുത്തുമ്പോള് പക്ഷെ ചില സമയങ്ങളില് നമുക്ക് വന്നു വളരെ വെയ്റ്റ് കൂടിയ അല്ലെങ്കിൽ ഭാരം കൂടിയ പുസ്തകങ്ങള് കൈയ്യിൽ കൊണ്ടു നടക്കുക എന്ന് പറയണത് ബുദ്ധിമുട്ടായിരിക്കും ഒന്നു രണ്ട് പുസ്തകങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് ഒരു ഇലക്ട്രോണിക് പതിപ്പുകൾ ഫയലില് ആക്കി നമ്മുടെ ഫോണിലായാലും ലാപ്ടോപ്സിൽ ആയാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്